സിനിമ മേഖലയിലെ വാർത്തകൾ എല്ലാം സത്യസന്ധമാണെന്ന് കരുതുന്നില്ല അവർ കുറേയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കാരണം അവർ പ്രശസ്തരാണ് ആ പ്രശസ്തരായവരുടെ ലൈഫിന് പിന്നാലെ ആൾക്കാർ എപ്പോഴും നോക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ അവരെ പറ്റി ഇങ്ങനെ പടച്ചു വിടാനും അങ്ങനെ ചെയ്യുന്ന പടച്ചു വിടുന്ന കാര്യങ്ങൾ വായിക്കാനും ആളുണ്ടാവുമല്ലോ സാധാരണക്കാരായ മനുഷ്യരെ പറ്റി പറഞ്ഞാൽ അത്ര അധികം അതിന് ഒരു പോപ്പുലാരിറ്റി കിട്ടത്തില്ല അതുകൊണ്ടായിരിക്കും സിനിമാക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തരായ കലാകാരന്മാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്ക റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പല കാര്യങ്ങളും വ്യാജ വാർത്തകൾ ആയിരിക്കും കാരണം സെൻസേഷനലായ ന്യൂസ് ഉണ്ടാക്കുക ആ ന്യൂസ് പോപ്പുലർ ആക്കുക എന്നതിന് അപ്പുറത്ത് അതിന് ഒരു ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം ശരിയായിരിക്കാം അതിനെ പൊലിപ്പിച്ചിട്ടായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് അതായിരിക്കും അതിൻ്റെ ഒരു നിജസ്തിതി എന്നു തോന്നുന്നു പിന്നെ അവർ ഫേമസ് ആകുന്നത് കൊണ്ട് പ്രശസ്തരായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ മനുഷ്യർക്ക് എല്ലായിപ്പോഴും ഒരു തൊരയുണ്ട് എല്ലാ കാലങ്ങളിലും അങ്ങനെയാണ് അപ്പം അവർ എന്തു ചെയ്യുന്നു അവർ എവിടെ പോകുന്നു അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കും ഇതൊക്കെ മനുഷ്യർ എല്ലായിപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ലൈം ലൈറ്റിൽ നിൽക്കേണ്ട അവരുടെ ഒരു ആവശ്യമായതു കൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലായ്പ്പോഴും വാർത്തകൾ ഉണ്ടാവേണ്ടിയതിനെ അവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം പക്ഷെ പിന്നേക്കാലം അത് അവർക്ക് തന്നെ ബാധ്യതയാകുന്നത് പോലെ അത്ര അധികമായിട്ട് അവയെ പറ്റി വ്യാജ വാർത്തകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു അത് ആളുകൾ വായിക്കുന്നു അത് പോപ്പുലർ ആകുന്നു അങ്ങനെ ആയിരിക്കും കുറേ കാര്യങ്ങൾ അതിന് ബേസ് ഉള്ളത് അല്ലെങ്കിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലാത്ത കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പം കുറച്ചു പേർക്ക് ബാധകമായ കാര്യങ്ങളെ എല്ലാവർക്കും വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരുടേതുമെന്ന നിലയ്ക്ക് ചെയ്യുമ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ ആ വാർത്തകൾ എല്ലാവരുടേതുമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ അങ്ങനെയാവും കുറേയൊക്കെ സൃഷ്ടിക്കപ്പെടുക അതൊക്കെയാണ് ഈ സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തോന്നുക സിനിമാക്കാർ കലാകാരന്മാരും ആര് തന്നെയായാലും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല കുറയേറെ പേര് നൂറിൽ എൺപത് ശതമാനം മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളെ നൂറ് ശതമാനം പേർക്കും ആപ്ലിക്കബിൾ ആണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരിക അതിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ നിലപാടുകൾ മനുഷ്യർ വിശ്വസിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ അല്ല എന്നു പറയുമ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയായിരിക്കും എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ആൾക്കാർക്ക് ഉണ്ട് അപ്പം അതിനെ ചൂഷണം ചെയ്തിട്ട് മീഡിയയിൽ പ്രശസ്തമാവുക നമ്മൾ അങ്ങനെ അവർ അവരെ പറ്റിയുള്ള വാർത്തകൾ കുറേക്കൂടി നമുക്ക് പോപ്പുലാരിറ്റി കിട്ടുന്നു അപ്പ അവരുടെ ഈ പറയുന്ന ഈ പ്രിൻ്റ് മീഡിയ ആയാലും അല്ലാത്തതാണെങ്കിലും അവരുടെ സെർക്കുലേഷൻ കൂടുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ അത് ഉപയോഗപ്പെടുത്തുന്നത് അത് വായിക്കാനും കാണാനും കേൾക്കാനും ആളുകളുണ്ട് ഇങ്ങനെയാണ് ഈ വിഷയത്തെ പറ്റി ഇന്നോളം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പിന്നെ വ്യക്തിപരമായിട്ട് ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കാറില്ല അവരും അത് അവരുടെ ജീവിത മാർഗ്ഗമാണ് അവർക്ക് ജീവിക്കാൻ കൊള്ളാം അതിന് അപ്പുറത്ത് നമുക്ക് അതിനാകത്ത് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല അവരെ പറ്റിയാണ് വാർത്തകളുടെ നിജസ്ഥിതി എന്തുതന്നെ ആയാലും അത് നമ്മള ജീവിതത്തെ ബാധിക്കുന്നതും അല്ല അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഇത്തരം വർത്തകളോട് വലിയ ഇന്നോളം കാണിച്ചിട്ടില്ല പിന്നെ കേൾക്കാറുണ്ട് കേൾക്കുന്നതിന് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ എന്നു നമ്മള് ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ലായിരിക്കാം എന്ന് വിചാരിക്കാറുണ്ട് അത്ര മാത്രമേ അത്തരം വാർത്തകളോട് നമുക്ക് തോന്നിയിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അതാണ് നമ്മൾ ചെയ്യേണ്ട നമ്മൾ പുലർത്തേണ്ട ഒരു സമീപനം എന്നാണ് ഇന്നോളം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് തുടർന്നും ആ രീതി തന്നെ കുട്ടികളോടായാലും മുന്നോട്ട് അഭ്യസിപ്പിക്കാനാണ് എനിക്ക് താൽപര്യം